ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് അവിയൽ ആയിരുന്നു അവിയലിൽ ചേന പയർ ഇളവൻ പിന്നെ ഇളവൻ ഇട്ടു അതിൽ കയ്പ്പയ്ക്ക പച്ച കായ മുരിങ്ങാക്കായ പിന്നെ മുരിങ്ങാക്കായ ഇട്ടു പിന്നീട് അതിൽ തൈര് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതൊക്കെ നീളത്തിൽ ഇങ്ങനെ കഷണങ്ങൾ നുറുക്കി ആദ്യം ചേന നുറുക്കി പച്ചക്കായ നുറുക്കി പിന്നെ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞു പിന്നെ ഇളവൻ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഒക്കെ ഓരോ ഒന്നര ഇഞ്ച് നീളത്തിൽ ചെറുതാക്കി അരിഞ്ഞിട്ടാണ് അതൊക്കെ ഒന്നിച്ച് കൂട്ടിയിട്ട് കഴുകിയിട്ട് വയ്ക്കൽ എന്നിട്ടത് വേവാൻ നേരത്ത് തൈര് ഒഴിച്ച് പിന്നെ കരിവേപ്പില ഒക്കെ ഇട്ട് വേവിച്ച് എടുത്ത് അങ്ങനെ ആണ് അവിയലിൻ്റെ അത് റെഡി ആയി വന്നു തൈരും ഉപ്പും എല്ലാം ഇട്ട് റെഡി ആക്കി വെച്ചതിന് ശേഷം മത്തൻ കറി ഉണ്ടാക്കി സാമ്പാർ ആണ് പിന്നെ ഉണ്ടാക്കിയത് സാമ്പാറിൽ വെണ്ട തക്കാളി മുരിങ്ങക്കായ മത്തൻ ഇളവൻ വഴുതന ചേന ചേമ്പ് ചെറിയൊരു കഷ്ണം ഇതൊക്കെ ഇട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കിയിരുന്നത് സാമ്പാറിൽ അത് നാളികേരം വറുത്തരച്ചിട്ടാണ് അതിൽ ഒഴിച്ചത് അത് ഉണ്ടാക്കിയതിനു ശേഷം അത് വറവ് ഇട്ട് എടുത്ത് വെച്ച് കരിവേപ്പില ഇട്ട് വറവ് ഇട്ട് അത് അങ്ങനെ രണ്ടാമത് ഉണ്ടാക്കിയത് സാമ്പാർ അത് കഴിഞ്ഞിട്ട് മസാല കറി ഉണ്ടാക്കി കിഴങ്ങ് പിന്നെ പച്ച പട്ടാണി വലിയ ഉള്ളി അതിട്ടിട്ട് പിന്നെ അതിൽ സോയാബീൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ട് അതിട്ട് അതിൽ മസാലകൾ മല്ലി മുളക് മസാല ചിക്കൻ മസാല ഒക്കെ ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കിയിരുന്നത് അത് എന്നിട്ട് അതിട്ട് വേവിച്ചതിന് ശേഷം നല്ല ഉണക്കമുളക് വറുത്ത് അത് എണ്ണയിലിട്ട് വറുത്ത് കരിവേപ്പിലയും ഉണക്കമുളകും കൂടി എണ്ണയിലിട്ട് വറുത്ത് അത് അതിലേക്ക് ഒഴിച്ച് അവിടെ അടച്ച് വെച്ചു പിന്നീട് ഉണ്ടാക്കിയത് ഉപ്പേരി ആണ് പയർ ഉപ്പേരി ആണ് അത് സാദാ ചെറുതാക്കി നുറുക്കിയിട്ട് ഉണ്ടാക്കി അങ്ങനെ വെള്ളത്തിൽ വെച്ച് വേവിച്ചതിന് ശേഷം വറവിട്ട് അതങ്ങനെ എടുത്തുവെച്ചു പിന്നീട് ഉണ്ടാക്കിയത് മത്തൻ ഒരു മത്തൻ്റെ ഒരു കൂട്ടുകറി അതിൽ മത്തൻ മമ്പയർ അതിൽ ഇതേമാതിരി നാളികേരം വരുത്തരച്ച് ഒഴിച്ചിട്ട് ആണ് അത് ഉണ്ടാക്കുക അതങ്ങനെ ഇതേ മാതിരി തന്നെ സാദാ ഉണക്കമുളക് ഒക്കെ ഇട്ട് വറവിട്ട് എടുക്കുക പിന്നെ ഉള്ളത് പുളിയിഞ്ചി ആണ് പുളിയിഞ്ചിയിൽ അരിപ്പൊടി എള്ള് വറുത്തത് ഇടണം പിന്നെ അതിൽ പുളി പുളി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് പുളി അരിപ്പൊടി എള്ളുപൊടി ഉലുവ ഇതൊക്കെ ചേർത്തിട്ടാണ് പുളിയിഞ്ചി ഉണ്ടാക്കുക നല്ല ശർക്കര ഉരുക്കി ഒഴിച്ചിട്ട് വേണം അതുണ്ടാക്കാൻ അങ്ങനെ പുളിയിഞ്ചി അങ്ങനെ ഉണ്ടാക്കി